നമ്മൾ കന്നുകാലിയെ പരിപാലിക്കാൻ ദിവസം നമ്മൾ അതിനെ വൃത്തി ആയിട്ട് കുളിപ്പിക്കണം കുളിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പശുവിന് ആഹാരം പശു ആയിരുന്നാലും ആടായിരുന്നാലും കന്നുകാലികൾ നമ്മൾ ആഹാരം കൊടുക്കാവൂ ആഹാരം കൊടുക്കുന്നു എന്നു വച്ചാൽ നമ്മൾ പച്ച ഈ പ്ലാവില ഈ വൈക്കോൽ ഈ ഇതൊക്കെയാണ് കൊടുക്കേണ്ട അതിൽ പൊതുവേ ആയിട്ട് അതിൽ മുടിയൊന്നും കാണാത്ത രീതിയിലാണ് നമ്മളത് സൂക്ഷിച്ച് അത്രയും കെയറോടു കൂടിയാണ് നമ്മൾ നോക്കേണ്ടത് അതിനെ എന്നും കുളിപ്പിക്കണം അത് കന്നുകാലി എന്നു പറയുമ്പോൾ വളരെ അധികം ചൂടുള്ളതാണ് അപ്പം അവർക്ക് ചൂട് കൂടുമ്പോഴ്ത്തേക്ക് അവർക്ക് ഓരോ അസുഖങ്ങൾ വന്നു ചേരും അതുകൊണ്ട് എന്നും കുളിപ്പിച്ച് നോക്കണം